ആ പറയൂ

ആണോ എന്താ ചെയ്യേണ്ടത് സിമ്മ് കൺവേർട്ട് ചെയ്യാനാണോ ത്രീ ജി ടു ഫോർ ജി ആണോ ഓക്കെ ഓക്കെ ഇപ്പം ഉള്ളത് ത്രീ ജി ആണോ അതിനായി ആധാർ കാർഡ് വേണം ഫോട്ടോ വേണം ആധാർ കാർഡും ഫോട്ടോ ആ അത് മതി നിങ്ങൾ ഓഫീസിലേക്ക് വരേണ്ടി വരും മൺഡേ വന്നാൽ മതി ജിയോ ആണോ സിമ് ആ ഓക്കെ ഓക്കെ പേയ്മെൻറ് ഉണ്ട് പേയ്മെൻ എന്താ റീചാർജ് ത്രീ ഫോർട്ടി നൈൻ ഉണ്ട് അൺലിമിറ്റഡ് ആണ് അൺലിമിറ്റഡ് ഫൈവ് ജി സോറി അൺലിമിറ്റഡ് ആണ് എസ് എം എസ് ആൻഡ് കോൾസ് പെർ ഡേ ഒന്നര ജീ ബി കിട്ടും ഫോർ ജി ആണെങ്കിൽ ആ കൺവേർട്ട് ചെയ്യാൻ ഹൺഡ്രഡ് റുപ്പീസ് ഉണ്ട് ഇങ്ങോട്ട് വരേണ്ടി വരും

ആ വേറെ ഓഫറ് കൂടി ഉണ്ട്

ത്രീ ഹൺഡ്രഡിൻ്റെ ഉണ്ട് ബൻ റിചാർജിൻ്റെ പിന്നെ ടു ട്വൻറ്റീന് ഉണ്ട് അത് പെർ ഡേ വൺ ജി ബി അൺലിമിറ്റഡ് എല്ല ഇല്ല ഇല്ല ഇല്ല സ്പീഡ് ഉണ്ടാവും ബട്ട് വൺ ജി ബി മ് അൺലിമിറ്റഡ് കോൾസ് അൺലിമിറ്റഡ് എസ് എം എസ് നിങ്ങൾ ഷോപ്പില് വന്നോളൂ

മൺഡേ മാത്രം അല്ല മൺഡേ ടു ഫ്രൈഡേ ഷോപ്പ് ഓപ്പൺ ആണ് ടെൻ ടു ഫൈവ് ഒ ക്ലോക് ആ അതെ അതിൻ്റെ ആണോ വേണ്ടത് കോപ്പിയാണ് വേണ്ടത് ആ എല്ലാത്തിന്നും കോപ്പിയാണ് വേണ്ടത് ഓക്കെ താങ്ക് യൂ